ഷുഗർ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് നമ്മളുടെ നാട്ടിൽ ഒരുപാട് നാട്ടുവൈദ്യങ്ങൾ ആ ഉണ്ട് പേരയ്ക്കന്റെ ഇലയൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗറ് കുറയും ഷുഗറ് കുറയും കുറയും എന്ന് കേൾക്കാം അപ്പോൾ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെത്തന്നെ പാഷൻ ഫുട്ട് കഴിക്കുന്നത് നല്ലതാണ് എന്ന് നല്ലതാണ് പിന്നെ ചക്ക ചക്ക ചക്ക കഴിക്കുന്നത് ചക്ക പുഴുങ്ങിയത്ത് ആണ് പച്ച ചക്ക കഴിക്കുന്നത് നല്ലതാണ് ഏറ്റോം നല്ലതാണ് ഷുഗറിന് അപ്പോൾ നമ്മൾ അതൊന്നും ഷുഗറ് ഉണ്ടാവാൻ ച ഉണ്ടാവില്ല അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പാഷൻ ഫുട്ട് പാഷൻ ഫുട്ടിൻ്റെ ഇല അതുപോലെത്തന്നെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ് ഷുഗർ ഉണ്ടാവില്ല പിന്നെ ഉലുവ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് അത് അങ്ങനെയൊക്കെ കുടിക്കുമ്പോൾ ഷുഗറ് നോർമൽ ആയി കോ ഷുഗറ് കൂടുതൽ ഉള്ളവർക്ക് കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് നാടുകളിൽ ഷുഗറ് കുറയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വൈദ്യം